വിയോജിൻ്റെ ചായക്കട അല്ലേ ആ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഓർഡർ ചെയ്യാൻ ആയിരുന്നു ഫങ്ക്ഷന് വേണ്ടിയെ ഫങ്ക്ഷന് വേണ്ടി കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ ആയിരുന്നു എന്തൊക്കെയാണ് കടയിൽ ഉള്ളത്

രാവിലത്തെ കാപ്പിയാണ് ഉദ്ദേശിക്കുന്നത് രാവിലെ കാപ്പി പൊറോട്ടയോ പൊറോട്ടയും പിന്നെ മട്ടനും കോഫി ഒരു അൻപത് പേർക്ക് ആ ഈരണ്ട് വച്ച് ആ കോഫിയും വേണം കോഫി പിന്നെ എന്തെങ്കിലും കേക്കോ അല്ലെങ്കിൽ മിഠായി മതി ആ ഉവ്വാ ഉവ്വവ്വ ഒരു പത്ത് മണി ആകുമ്പം എത്തിക്കണം ആ ഒൻപത് മുക്കാലാകുമ്പം എത്തിയാൽ പത്ത് മണിക്ക് ഉള്ളിൽ എത്തണം

ലൊക്കേഷൻ പിന്നെ പാണ്ടിപ്പാറ അതെ അതെ അതെ ആ ഗൂഗിൾ പേ ചെയ്തേക്കാം

അപ്പം ചെയ്തേക്കാം എത്ര വേണം ആ ഓക്കെ

ആയിക്കോട്ടെ ഉവ്വാ പത്തുമണിയൊക്കെ ആകുമ്പം ചെയ്താൽ ഏഴാം തീയതി കാപ്പി നാല് ആയിട്ട് മൊത്തം അൻപത് അൻപത് പേർക്ക് ഓക്കെ

അത് ഇത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു നമുക്ക് അതിന് അത് നമുക്ക് ആ ഉവ്വാ അത് പക്ഷേ കൂടുതലാവും കൂടുതൽ ആൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് അത് ഊണായിരിക്കും ഓക്കെ